ഹലോ ആ സൂര്യ ഹോട്ടലല്ലേ ആ ഇതേ ഞാൻ ഒരരമണിക്കൂർ മുമ്പ് ഒരു ഫുഡ് ഓർഡർ ചെയ്തിരുന്നേ അപ്പോള് അത് ഡെലിവറി ചെയ്യോം ചെയ്തു പക്ഷേ എനിക്കത് കൊണ്ടുവന്നപ്പഴത്തേനും അത് കുറെയൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നെ അപ്പോള് അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ കൂടെ കുറച്ച് പൊറോട്ടയും ബീഫ് കറിയുമായിരുന്നു പറഞ്ഞിരുന്നത് അതിൻ്റെ കൂടെ ബിരിയാണിയും ഉണ്ടായിരുന്നു പക്ഷേ വേറെ ഫുഡിനൊന്നും കുഴപ്പമില്ല അതിനകത്താ ബീഫ് കറി നല്ല രീതിയിൽ ലീക്ക് ചെയ്യ്തിട്ടുണ്ടേ അപ്പോള് അതുകൊണ്ട് എനിക്ക് അത് ഇപ്പോള് വേറെ ആർക്കും കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടത് ഒന്ന് തിരിച്ചെടുക്കണം അത് അപ്പോള് ഞാനത് പൈസയും കൊടുത്തിരുന്നു അപ്പോഴെനിക്കത് തിരിച്ച് പൈസയും തിരിച്ചു തരണം സാധനം തിരിച്ചുകൊണ്ടുപോവുകയും വേണം അതിൻ്റെ അതുകൊണ്ട് അങ്ങനെ ഒന്നു ചെയ്യണവേയ് അല്ലെങ്കില് പിന്നെ തിരിച്ചെടുത്തിട്ട് വേറെ ഫുഡ് തരുമെന്നുണ്ടെങ്കില് അങ്ങനെ കൊണ്ടുവന്നു തന്നാലും മതി അല്ലെങ്കില് പൈസ എനിക്ക് തിരിച്ച് തരണം